പൊതുവേ ആൾക്ക് ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് നൃത്തം ഇതു വലിയ ആരോഗ്യമേറിയ നൃത്തം എങ്ങനെ സഹായിക്കുന്നു എന്നു ചോദിച്ചാൽ ആരോഗ്യപരമായി വലിയ കാര്യത്തിലൊന്നും സഹായിക്കുന്നില്ല എന്നാൽ ശരീരം ബോഡി അനങ്ങുകയും മറ്റും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്നാൽ ആളുകൾക്ക് കൂടുതൽ സന്തോഷം തോന്നിപ്പിക്കുകയും ആളുകളിലും മികവൊക്കുകയും അതുവഴി ആളുകളും വലിയ വലിയ സ്ഥലങ്ങളിലെത്തിച്ചേരുകയും ചെയ്യുന്നത് ഈ നൃത്തം എന്ന മഹാകല വഴിയാണ് എന്നാൽ

പിന്നെ കൂടുതലായും ആൾക്കാർ പണ്ട് മുതൽ ചെയ്തു വരുന്നതും ആളുകൾക്ക് കൂടുതലായിഷ്ടം തോന്നിക്കുന്നതും ഉള്ള ഒരു കാര്യം തന്നെയാണ് നൃത്തം കൂടുതലായി ആളുകൾ പൊതുവേ ചെയ്തു വരുന്ന കാര്യവും ആളുകളിലേക്ക് കൂടുതലായും എത്തിക്കുകയും ചെയ്യുന്നത് നൃത്തം തന്നെയാണ് ആരോഗ്യപരമായി ഉള്ള മാറ്റങ്ങളൊട്ടാകെ സൗ തോന്നിക്കുകയും തോന്നിക്കുകയും മറ്റും ഇതു വഴി ചെയ്യാറുണ്ട് നൃത്തം നൃത്തം വഴി ആളുകളിലേക്ക് പൊതുവേ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതു കൊണ്ട് എന്നാൽ ആളുകളിലേക്ക് ആരോഗ്യപരമായി ഒരുപാട് മാറ്റങ്ങൾ സന്തോഷിപ്പിക്കുകയും അവർ ഇഷ്ടപ്പെടുന്ന ഒരു കലയെ വീണ്ടും വീണ്ടും അത് ചെയ്യുകയും മറ്റുള്ള നിലയിലേക്കെത്തുകയും അവരിൽ സന്തോഷം തോന്നിപ്പിക്കുകയും എന്നാൽ അവർ കൂടുതലായിഷ്ടപ്പെടുന്ന നൃത്തവും ഇതു തന്നെ ആയതിനാൽ അവർക്ക് കൂടുതൽ ഇഷ്ടം വരികയും അതിനോട് കൂടുതൽ വീണ്ടും ആ കല ചെയ്ത് ഒ ഒട്ടേറെ മികവുകളിലെത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കാറുമുണ്ടാളുകൾ കൂടുതലായുമാളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കലാ കലാപരമായ ഒരു ചിന്താഗതി കൂടിയാണ് നൃത്തം എന്നത് ആളുകളെ കൂടുതൽ സന്തോഷം തോന്നിപ്പിക്കാറും അവർക്ക് ഒട്ടേറെ വേദികളിൽ നൃത്തം ചെയ്യാൻ സാധിക്കുകയും അതു വഴി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ സംഭവിക്കുകയും പുരസ്കാരം സംഭവിക്കുകയും പുരസ്കാരം കിട്ടുകയും ചെയ്യുന്ന ഒട്ടേറെ ഒരു മികവുറ്റ മികവുറ്റ ഒന്നു തന്നെയാണ് നൃത്തം എന്നത് നൃത്തം വഴിയെ ആളുകൾക്ക് കൂ ഒട്ടേ ആളുകൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുകയും നൃത്തം വഴി ആളുകളെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ഇത് കണ്ട് ചിലവർക്കും ഉൻ ഉന്നതിയിലേക്ക് എത്തുകയും നൃത്തം ചെയ്യാൻ തോന്നിപ്പിക്കുകയും ആരോഗ്യമുള്ളവരായിരിക്കാൻ നൃത്തം ആളുകളെ സഹായിക്കുന്നുമുണ്ട് എന്നും കൂടിയാണ് ഇതു വഴി പറയുന്നത് ആളുകൾക്ക് കൂടുതൽ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഈ കലയെ ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതു മരണം വരെ ഈ കല ചെയ്യണമെന്നും ഇതു വഴി ഒട്ടേറെ കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്നും ചിലവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കലയെ വളരെയധികം സ്നേഹിക്കുകയും കല എന്തൊരു ചെയ്താലും മടുക്കുകയില്ല മറിച്ച് അതിനോടുള്ള ഇഷ്ടം കൂടുകയുമാണ് ചെയ്യുന്നതെന്നും പറയുന്നവരും ഒട്ടേറെയായിട്ടുള്ളവരുണ്ട് നൃത്തം ചെയ്യുമ്പോളാളുകൾക്ക് സന്തോഷം തോന്നുകയും മറ്റുള്ളവരെ സന്തോഷം ചെയ്യിപ്പിക്കുകയും ഇതുവഴി മറ്റുള്ളവരിലേക്കൊരാകാംഷ ഉയർത്തുകയും എന്നാൽ ഞാനിങ്ങനെ ചെയ്തുവല്ലോ എന്നാലെ നി നിനക്കും ഇതായിക്കൂടെ എന്ന് പ്രേരിപ്പിക്കുകയും ഇതു വഴി സന്തോഷം തോന്നിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഒട്ടേറെ മാറ്റങ്ങൾ തോന്നിപ്പിക്കുന്ന ഒന്നു കൂടിയാണ് നൃത്തം എന്നത് ആരോഗ്യപരമായുള്ള ഭാഷ ശൈലിയും ഒട്ടേറെ വിശേഷണമായ ഒന്നു കൂടിയാണ് നൃത്തം ആളുകൾക്ക് വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുകയും സ ആളുകളിലേക്ക് ഇഷ്ടം തോന്നിപ്പിക്കുകയും ആകർ ആകർഷിക്കുകയും ചെയ്യുന്ന ഒന്നു കൂടി തന്നെയാണ് നൃത്തം എന്നത് ഇതു വഴി ആളുകളിലേക്ക് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുകയും മികവുറ്റ മികവുറ്റ മികവുറ്റ കാര്യങ്ങളിലേക്കാളുകളെ സംരക്ഷണമാക്കുകയും എന്നാൽ നൃത്തം വഴി എന്നാൽ നൃത്തം വഴി ആളുകളുടെ ആളുകളുടെ മാറ്റങ്ങൾ സംഭവിക്കുകയും ആരോഗ്യം എന്ന നിലയിൽ പൊതുവെ ചെറുപ്പം മുതൽ ആരോഗ്യം എന്ന നിലയിൽ ആൾക്കാർക്ക് ആരോഗ്യം സംരക്ഷിപ്പിക്കുകയും ആണ് കൂടുതലായി ചെയ്യുന്നത് പിന്നീട് ഒട്ടേറെ മാറ്റങ്ങളിതു വഴി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ചെറുപ്പം മുതൽ ആളുകളീ കല ചെയ്തു വരുന്നത് ചെയ്തു വരികയും ഇതിനോടൊരു ഇഷ്ടം തോന്നിക്കുകയുമാണ് കൂടുതലായി ചെയ്യുന്നത് പിന്നീട് ഇതു വഴി പറയാനുള്ളതെന്നു പറഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ആ ആ ഒരു ആരോഗ്യത്തിനു വഴങ്ങുകയും മറ്റുമാണ് ഇത് ചെയ്യുന്നത് പിന്നീടുള്ള കാര്യങ്ങളിൽ ആളുകളെ കൂടുതലായിഷ്ടം തോന്നിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഇതു വഴി നൃത്തം നൃത്തം ഈ കലയോട് ഇഷ്ടം തോന്നിക്കുകയുമാണ് ചെയ്യാറുള്ളത് ഈ കലയെ അത്ര മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളും പൊതുവെ സമൂഹത്തിലുണ്ട് ഇതിനു വേണ്ടി തന്നെയായി ജീവിക്കുന്നവരും ഇതു വഴി ഒട്ടേറെ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ഒട്ടേറെ വിജയങ്ങളിലെത്തിച്ചേരാൻ സാധിക്കുന്നവരും ഇതു വഴി സന്തോഷം കണ്ടെത്തുന്നവരും കൂടുതലായുണ്ട് നൃത്തമെന്നാലെന്താ ഒരു കല കൂടി തന്നെയാണ് ഈ കലയെ ഒരുപാടിഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും കൂടുതലായും ഈ നാട്ടിലുണ്ട് എന്നതാണ് ഇതു വഴി പറയുന്നത് ആരോഗ്യപരമായി കൂടുതൽ അസുഖങ്ങളൊന്നുമില്ലാത്തവരും ആരോഗ്യത്തിന് ഒരു കുറവുമില്ലാത്തവരും ആരോഗ്യത്തിന് ഒരു മാറ്റം സംഭവിക്കാണ്ട് ദൃഢമായി ഈ നൃത്തത്തിൽ തന്നെ ഉറച്ച് നിൽക്കുന്നവർക്കും കൂടുതലായി ഇതു വഴി മാറ്റങ്ങൾ ഒന്നും സംഭവിക്കാതെ ഇതിനെ ഇഷ്ടപ്പെടുന്നവരും കൂടുതൽ കലയെ സ്നേഹിക്കുന്നവരുമാണ് നൃത്തം ചെയ്യുകയുള്ളൂ കാരണം ചെറുപ്പം മുതൽ വളർന്നു ശീലിച്ച് വന്നവർക്കത് മരണം വരെ ഒരു കുഴപ്പവുമില്ലാണ്ട് നൃത്തം ചെയ്യുകയും ചെയ്യും ഉന്ന ഉന്നത വേദികളിലെത്തിപ്പെടുകയും അതിനോടുള്ള സ്നേഹവും ആകാംക്ഷയും ഇഷ്ടപ്പെടുകയും എല്ലാം ചെയ്യുന്നതും ഇതു വഴി തന്നെയാണ് ആളുകളിലേക്ക് കൂടുതലിഷ്ടം തോന്നിപ്പിക്കുകയും ആളുകളെ ആളുകളെ പൊതുവെ പ്രേരിപ്പിക്കുകയും നൃത്തം വഴി ആളുകൾക്കിഷ്ടം തോന്നുകയും കലാരൂപത്തിനെ മാറ്റം വരുത്താതെ ചെയ്യുന്നതുമായ ദൃഢമായ ഒട്ടേറെ മാറ്റങ്ങളിതു വഴി നേടിയെടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് ആരോഗ്യപരമായ ഒരു പ്രശ്നമില്ലാത്തവരും ഇതു കൂടുതലായി നൃത്തം ചെയ്യുവാനും കൈ വഴക്കങ്ങളും മെയ് വഴക്കങ്ങളും അല്ല ഇതു വഴി നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഒട്ടേറെ നമ്മുടെ ഈ നാട്ടിൽ ഉള്ളതെന്നുള്ള സത്യം ആളുകൾക്ക് ഈ കലയോട് ഒരു ഇഷ്ടം തോന്നിക്കുക എന്നു തന്നെയാണ് ഇതിൻറെ ഉറവിടമെന്നത്